പണ്ടുമുതലേ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു വിനോദ വ്യവസായം അല്ലെങ്കിൽ ആ ആഴ്ച ആൾക്കാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നത് നാടകങ്ങളായിരുന്നു ഡ്രാമകൾ ആയിരുന്നു ഇപ്പോൾ ആ ഡ്രാമകളിൽ ആർക്കും താല്പര്യമില്ല കാരണം ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നപ്പോൾ ഒരുപാട് ഡിജിറ്റലൈസ് ആയിട്ടുള്ള സൗകര്യങ്ങള് ഫോണും ടിവിയും ഒക്കെ വന്നതിനുശേഷം ആൾക്കാർ എല്ലാവർക്കും സിനിമയോട് മാത്രമാണ് താല്പര്യം ഉള്ളത് അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നത് ക്ഷമയോടെ ഇരുന്ന് ഡ്രാമ കാണാനൊന്നും ആരും അതിന് മെനക്കെടാറില്ല നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന സിനിമകളോടാണ് ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ